ഇത് ഹോട്ടലിലെ സ്റ്റാഫല്ലേ ഇത് നമ്മള് ഇത്രയും പൈസയും കൊടുത്ത് എക്സ്പെൻസും കൊടുത്ത് റൂമെടുക്കുന്നത് എന്തിനാണ് റൂമിൻ്റെ ഫ്രണ്ട് ഡോര് വർക്കെയ്യുന്നില്ല അതുപോലെ ബാത്റൂമിൻ്റെ ഡോര് വർക്കെയ്യുന്നില്ല പഴയ കസ്റ്റമര് റൂമില്നിന്ന് ചെകൗട്ടെയ്യുമ്പോള് നിങ്ങളിതൊന്നും ചെക്കെയ്യാറില്ല എന്താ ചേട്ടാ നമ്മളിത്ര പൈസയൊക്കെ എടുത്ത് റൂം വാങ്ങുന്നതു നമുക്ക് നമ്മളുടേതായ സ്ഫേറ്റിക്കു വേണ്ടിയിട്ടല്ലേ ഏട്ടാ അതെങ്ങനെയാ ചേട്ടാ അങ്ങനെ ആവുക നിങ്ങള് റൂം ചെക്ക് ചെയ്തുകഴിഞ്ഞ ശേഷമല്ലേ പിന്നെ അടുത്ത ഗസ്റ്റിന് കൊടുക്കുക അപ്പോള് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായാല് നമ്മളെന്താണു ചെയ്യുക ഇതിപ്പോള് ഫ്രണ്ട് ഡോറും വർക്കെയ്യുന്നില്ല അതുപോലെ ബാത്റൂം ഫ്രണ്ട് ഡോർ പിന്നെ മെയിൻ ഡോറാണ് അതുപോലെ തന്നെ ബാത്റൂമും അതും അത്രയും ഇമ്പോർട്ടൻറ്റായിട്ടുള്ളൊരു കാര്യമല്ലേ ചേട്ടാ ഇത് കുറേ നേരമായി റൂം ലോക്കെയ്തിട്ടുണ്ടെങ്കില്പ്പിന്നെ അൺലോക്കെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തു ചെയ്യും ഇതൊക്കെ നിങ്ങള് ശ്രദ്ധിക്കേണ്ടതല്ലേ ഇങ്ങനെ ഒരു ഭാഗത്തുനിന്നൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങള് ഇതൊക്കെ നോക്കണ്ടേ ഒരാള്ക്കുള്ള റൂമും കാര്യങ്ങളുമൊക്കെ പ്രൊവൈഡെയ്യുമ്പോള് ശ്രദ്ധിക്കിനി ഒന്നുല്ലേലും നിങ്ങളെ പോലെ ഇത്രയും വലിയ അതായതിത്രയും വലിയ ഹോട്ടല് നിങ്ങളുടെ നിലവാരത്തിനെയൊക്കെ ബാധിക്കില്ലേ റേറ്റിംഗിനെ ബാധിക്കില്ലേ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ഇതിപ്പോള് എപ്പോഴാണു വരിക ആളെപ്പോഴാണു വരിക ഇതു നമ്മളിപ്പോള് നമ്മള് നമ്മള്ക്കിപ്പോള് നമ്മുടേതായ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോള് റൂമിന്റെ ഡോറിങ്ങനെ ശരിയല്ലേ എന്തെയ്യും പെട്ടെന്നൊന്ന് അതിപ്പോള് പെട്ടെന്നൊന്നു പുറത്തേക്കു പോകുന്നു ഇല്ലെങ്കില് പോകണമെങ്കില് ഇപ്പോള് നമ്മളെന്താണു ചെയ്യുക അതു വരെ ടോയ്ലെറ്റില് പോകണമെങ്കില് അതിൻ്റെ ഉള്ളില്ത്തന്നെ ഇരുന്നാല് മതിയോ പുറത്തേക്ക് ഇറങ്ങണ്ടേ ചേട്ടാ ആ ഓക്കെ ഓക്കെ താങ്ക്യു താങ്ക്യു ചേട്ടാ വേഗം തന്നെ അയക്കാൻ നോക്കൂ ചേട്ടാ ചേട്ടാ മാക്സിമം ഒരഞ്ച് മിനിറ്റ് കെട്ടോ ആണോ നിങ്ങളിതൊക്കെ നിങ്ങള സ്റ്റാഫ് നിങ്ങള് സ്റ്റാഫല്ലേ അപ്പോള് നിങ്ങള് ശ്രദ്ധിക്കേണ്ടേ അടുത്ത കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോള് ശ്രദ്ധിക്കണം അല്ലെങ്കില്പ്പിന്നെ നിങ്ങളുടെ ഹോട്ടലിനിപ്പോള് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോകും ശ്രദ്ധിക്കേണ്ടേ

ഓക്കെ എന്നാല് മെയിൻറ്റെനൻസിനുള്ള ആളോടു വേഗം വരാൻ പറയു ഓക്കേ താങ്ക്യു